ഞാനും എ എല്ലാ വാർത്തകളും കാണാറുണ്ട് മിക്കവാറും പത്രം വായിക്കും അതു കഴിഞ്ഞ് ടി വി ന്യൂസ് കാണും എനിക്ക് മിക്ക വാറും കുറ്റ കൃത്യങ്ങളായിട്ടുള്ള ന്യൂസുകളാണ് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങളാണേറ്റവും കൂടുതൽ മുന്നേ മുന്നോട്ടായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ന്യൂസാണ് ഞാൻ കാണുന്നത് കൂടുതലായിട്ടും മാ അതുപോലെ കൊള്ള കൊല കുട്ടികൾക്കു നേരെയുള്ള ലൈംഗിക അതിക്രമം അതുപോലെ പ്രായമായവർക്കു നേരെയുള്ള അതിക്രമം അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ പ പ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് അതുപോലെ നമ്മുടെ പോലീസ് സേനയാണെങ്കിലും കുറ്റകൃത്യങ്ങളൊത്തിരി കുറക്കാനായിട്ടവർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും അത് ഒത്തിരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ് പിന്നെ കുട്ടികളെ ഒരുപാട് നേ കുട്ടികൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിലിപ്പം നടന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ലൈംഗിക അതിക്രമം ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രായമായവരെ തലക്കടിക്കുക അവരുടെ ആഭരണങ്ങൾ അടിച്ചു കൊണ്ടു പോകുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതുകൊണ്ട് കുറ്റകൃത്യങ്ങളാണെനിക്ക് പല കുറ്റകൃത്യങ്ങളിപ്പം വർഷങ്ങളായ കുറ്റകൃത്യങ്ങൾ വരെയും ഇപ്പം നമ്മുടെ പോലീസ് സേന തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല പല കാര്യങ്ങളും പുതിയ പുതിയ നിയമങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു കൊണ്ടിരിക്കുന്നു കൊ കൊള്ളയും കൊലയുമില്ലാത്ത ഒരു സ്ഥലം പോലുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് എല്ലാ എല്ലാവരും നാട്ടുകാരും എല്ലാവരും ഒരു പോലെ അതിനെതിരെ ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ കുറയുകയുള്ളു അതുകൊണ്ടെനിക്ക് കൂടുതലും കുറ്റകൃത്യങ്ങളായ ന്യൂസുകൾ കാണുന്ന ഞാൻ മിക്കവാറും ടി വി വെച്ചാലതാണ് നമുക്ക് കാണാൻ പറ്റുക ഇവിടെ കൊള്ളയും കൊലയും ഇതെല്ലാമാണ് നമ്മളെപ്പോഴും കണ്ടു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ ന്യൂസുകൾ കൂടുതലും നമ്മളിതെപ്പം വെച്ചാലും നമ്മളതാണ് കണ്ടു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടതു കാണും ഞാനെപ്പോഴും മിക്കവാറും അത് കാണാറുണ്ട് പിള്ളേരെയൊക്കെ ഒത്തിരി സൂക്ഷിക്കാനുണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി സൂക്ഷിക്കണം എല്ലാവരും അതുപോലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ നമ്മളെ കൊണ്ടു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യുക